ഹലോ ആ ട്രീ ട്രീ സലൂൺ അല്ലെ ട്രീ യൂനിസെക്സ് സലൂൺ ആ ഞാന് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്ട്രെയ്റ്റനിങ് കെരാട്ടിൻ ബോട്ടോക്സ് അതിനെ പറ്റിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു എനിക്ക് അതി അതിൻ്റെ അപ്പോയിൻറ്മെൻറ് കൂടി എടുക്കണം എന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെ ആണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അതായത് ഹാഫ് സ്ട്രൈറ്റനിങ് സ്ട്രൈറ്റനിങ് ഓർ കെരാട്ടിൻ ആ ആ അതായത് പെർമെനൻറ് ആണ് ഉദ്ദേശിക്കുന്നത് ആ അ അതെ അതെ ആ അല്ലെ അ ഒക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇല്ല ഞാന് അ ഇല്ല കുഴപ്പമില്ല പറഞ്ഞോളൂ ആണോ ആ അപ്പോൾ ടൈമ് നമുക്ക് ഏകദേശം എത്ര ടൈമ് എടുക്കും എന്ന് ഒന്ന് പറയാൻ പറ്റുവോ ആണല്ലേ അത് ഓക്കെ അല്ല എനിക്കൊരു മീഡിയം ലെങ്ത്ത് ഉള്ളു ഷോൾഡർ ഇറങ്ങി നിൽക്കുന്നുണ്ട് അത്രേ ഉള്ളു അ ഫ്രീ അവേഴ്സ് അല്ലെ ആ അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഓ ആണല്ലേ ആണോ ആ എയിറ്റ് ടു ടെൻ അല്ലെ ആ ഓക്കെ അപ്പോൾ ഈ ഇതിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട് ഏതെല്ലാം ഒന്ന് പറയ്യാൻ പറ്റുവോ ആ നി ആ നിങ്ങൾക്ക് ഹെയർ കളറിംഗിൻ്റെ ഒരു എന്താ പറയുക റേറ്റ് എത്രയാണ് വരിക അതായത് സ്ട്രീക്ക് അനുസരിച്ച് പേർ സ്ട്രീക്ക് എത്ര വരും ആണല്ലേ ആ ഒക്കെ അ ഹാ ഹാ ഓക്കെ ഓക്കെ ആണോ ആ ഓക്കെ ആണോ ഓക്കെ ഓക്കെ അപ്പോൾ ആ അപ്പോൾ ഈ ഇതിനൊക്കെ ഇപ്പോൾ എത്ര ഡ്യൂറേഷൻ നിൽക്കും ഇത് എത്ര നാള് നിൽക്കും ഇപ്പോൾ ആ സ്ട്രൈറ്റനിങ്ങിൻ്റെ ആണോ അതെ അല്ലെ ആ അപ്പോൾ ഈ മെയിൻടെയിൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് മെയിൻടെയിനിങ് എന്താ പരിപാടികളൊക്കെ ഓ ഓ അങ്ങനെ

ആണോ ഓക്കെ ആ അ ആണോ ഓക്കെ ഓക്കെ അപ്പോൾ അതെവിടുന്നാണ് പർച്ചെസ് ചെയ്യാൻ പറ്റുക ആണോ ഓക്കെ അല്ല അപ്പോൾ ഇത് നമുക്ക് പുറത്ത് നിന്നായാലും പർച്ചെസ് ചെയ്യാൻ പറ്റുവോ ആണല്ലേ ആ ആണല്ലേ അത് പിന്നെ ഈ സിക്സ് ടു വൺ ഇയർ പറഞ്ഞിരുന്നില്ലേ ആദ്യ ഡ്യൂറേഷൻ അത് കഴിഞ്ഞ് എൻ്റെ ഹെയർ എങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു അതായത് എങ് എങ്ങനെ ആയിരിക്കും അതിൻ്റെ അപ്പിയറൻസ് വരിക ആണല്ലേ അല്ല അതായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ ആകുമോ അതോ ഇപ്പോൾ ആണല്ലേ ആ ആ ഓക്കെ ആ അ ആണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് നാളത്തേക്കൊരു അപ്പോയിൻറ്മെൻറ് വേണം നാളെ ഒരു ആ ഒരു ലെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ ആ ആ അതെ പേര് അൽന

ഒക്കെ എനിക്ക് സ്മൂത്തനിങ് ആണ് വേണ്ടത് സ്മൂത്തനിങ് കേട്ടോ സ്മൂത്തനിങ് ആണ് വേണ്ടത് ആ ആ ഓക്കെ അ ഓക്കെ താങ്ക്യൂ